ഫോണ് ഉപയോഗിക്കുന്നതിൻ്റെ ഞാൻ ആദ്യമേ ഉപയോഗിച്ചോണ്ടിരുന്നത് നോക്കിയെൻ്റെ ഒരു ഫോണാണ് ചെറിയ ഫോൺ അതിൽ നമ്പർ ഡയല് ചെയ്യാൻ മാത്രം അല്ലെങ്കിൽ നമുക്ക് ഫോൺ ചെയ്യാൻ മാത്രം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം മാത്രമാണ് അതീന്ന് മാറി പിന്നെ കുറച്ചൂടെ നല്ലെയൊരു സെറ്റ് എടുത്തു അതും കീപാഡുള്ള ഫോണായിരുന്നു അതിനു ശേഷം നോകിയെടെ ഒരു സ്മാർട് ഫോൺ രീതിയിലേക്ക് മാറി ഇപ്പം ഞാൻ രണ്ടാമത്തെ സ്മാർട് ഫോണാണ് ഉപയോഗിക്കുന്നത് ഇപ്പം ഇതിൽ കുറച്ചൂടെ നമുക്ക് നെറ്റ് സ്വകാര്യം യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് വാട്സാപ്പ് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക് മ്യൂസിക് കേൾക്കാം അങ്ങനെ ഒത്തിരി ഒത്തിരി ഫെസിലിറ്റീസ് നമുക്ക് ഫോട്ടോസൊക്കെ പെട്ടന്ന് എടുക്കാൻ പറ്റും അതിന് കാമറേടെ ആവശ്യമില്ല അത് നമ്മൾ ഉപയോഗിക്കുന്നു അതുകൊണ്ട് നമ്മൾ പെട്ടന്ന് പെട്ടന്നുള്ള ചെഞ്ചേസ്കൾ എല്ലാം നമുക്ക് ഫോൺ വഴിയാണ് കാര്യങ്ങളെ കുറിച്ച് കാര്യങ്ങളിൽ കുറച്ചൊക്കെ വ്യക്തത വരുത്താൻ പറ്റുന്നുണ്ട് കാരണം നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഈ ഫോണുകൊണ്ട് ടൈം അറിയാൻ പറ്റുന്നുണ്ട് ഫോട്ടോ എടുക്കാം നമുക്ക് മ്യൂസിക് കേൾക്കണമെങ്കിൽ മ്യൂസിക് കേൾക്കാം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പെട്ടന്നു ചെയ്തെടുക്കാം പറ്റുന്നുണ്ട് അതിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്